പ്രധാനമന്ത്രി പലതരം ഉപകാരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നു വച്ചുകഴിഞ്ഞാൽ കർഷകർക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ വച്ച് അവരുടെ അക്കൗണ്ടിലേയ്ക്ക് കയറുന്നുണ്ട് പിന്നെ അത് ഒരു വാഗ്ദാനമായിട്ടാണ് ആ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇപ്പോഴും കയറുന്നുണ്ട് അവർ പുതുക്കുന്നുണ്ട് അത് കയറുന്നുണ്ട് അപ്പോൾ അവർക്കൊരു വലിയ സഹായമായിട്ടാണ് പ്രധാനമന്ത്രി അത് ചെയ്തത് പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീടുകൾ വച്ചു കൊടുക്കാനും അങ്ങനത്തെ പരുപാടികളൊക്കെയാണ് ചെയ്യാറ് പിന്നെ എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ നല്ല നല്ല റോഡുകൾ അതായത് നാഷണൽ ഹൈവേയ്സ് അങ്ങനെ പലതരം പരുപാടികൾ നടക്കുന്നുണ്ട് പിന്നെന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആളുകളെ പലതരത്തിൽ സഹായിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ പല റേഷൻ കടയിലാണെങ്കിലും പലതരം അരികളൊക്കെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരടക്കം കൊടുക്കുന്നുണ്ട് അതുകാരണം അവർക്ക് വലിയ ഒരു ഉപകാരമാണ് പുറമേനിന്നും അരിക്ക് ഭയങ്കര വിലയായിട്ടാണ് കാണുന്നത് അപ്പോൾ റേഷൻ കടയിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക്

പലതരം പദ്ധതികളുണ്ട് ഓരോ പദ്ധതികളും എനിക്ക് കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതാണ്